ആരാധനയ്ക്ക് അനുചരിക്കുന്ന പ്രത്യേക സാംസ്കാരിക അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെല് ഇപ്പൊൾ ഹി ഹിന്ദു വിഭാഗത്തിൽ പെട്ട ഒരു ആൾക്കാര് ആണെങ്കില് അമ്പലത്തില് കുളിച്ച് കുളിച്ചിട്ട് പോവുക പിന്നെ കുളിച്ച് ശുദ്ധിയോട് കുടി പോകുക അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ ഉണ്ട് പൂജാകർമങ്ങള്ളൊക്കെ ആയിട്ട് പിന്നെ മുസ്ലിം വിഭാഗത്തിൽ പെട്ടവർ ആണെങ്കിൽ വെള്ളിയാഴ്ച ജുമായിക്ക് പോകുക പിന്നെ നിസ്കരിക്കാൻ പോകുന്നൊരു രാവിലെ അഞ്ച് നേരത്തെ നിസ്കാരത്തിന് അതിന്റെതായ കൃത്യമായ സമയങ്ങളിൽ പോകുക അങ്ങനെ ഉള്ള നിയമ വിധികളൊക്കെയുണ്ട്